കഴിഞ്ഞ വർഷം അമ്മേടെ വീട്ടിൽ പോയപ്പം മണ്ണാർക്കാട് പോയപ്പത്തേക്കിനും ഞങ്ങൾ ചുമ്മാതെ മണ്ണാർക്കാട് പള്ളി ആ ഭാഗത്തോട്ടൊക്കെ ആയത്തേനും ഒരു സെലക്ഷൻ ട്രയൽസ് കണ്ടു അപ്പം ഞങ്ങൾ ആദ്യം വിച വിചാരിച്ചത് അവിടെ ട്രെയിനിങ് നടത്തുവായിരിക്കും കോച്ചിനോട് ചോദിച്ചിട്ട് ട്രെയിനിങ്ങിന് കയറാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പത്തേനും ആട്ടെ കോച്ചിനോട് ചോദിച്ചു അന്നേരം പറഞ്ഞു സെലക്ഷൻ ട്രയൽസ് നടക്കുവാണ് തൃശൂർ ഒരുബാങ്കിന് വേണ്ടിയുള്ള സെലക്ഷൻ ട്രയൽസാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു ബാങ്കിലോട്ടും ഉണ്ട് പിന്നെ മലപ്പുറത്ത് ഒരു ടീമ് സെറ്റെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഉള്ള സെലക്ഷനും കൂടെ ആന്ന് തോന്നുന്നു ഒരു പതിനൊന്ന് പ്ലെയേഴ്സിനെ എടുക്കുന്നുണ്ട് സെവൻസ് ലീഗിന് വേണ്ടിയാന്ന് പറഞ്ഞു അപ്പം ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് രജിസ്റ്റർ ചെയ്തിട്ട് ബൂട്ടൊണ്ടങ്കിൽ ബൂട്ടിട്ട് ഇറങ്ങിക്കോ ഇല്ലേ ഇവരുടെ ആരോടും മേടിച്ചാൽ മതീന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണെങ്കിൽ പെട്ടെന്ന് അപ്പം ഞങ്ങളെ കോച്ച് അവിടന്നന്നെ ജേഴ്സിയെല്ലാം തന്നു രണ്ട് ടീം ഇട്ടു അതിനും റഫറി ആയിട്ട് കോച്ച് തന്നെയാണ് നിന്നത് കോച്ച് വിസിലടിച്ചു കളിയെല്ലാം തുടങ്ങി അത് കഴിഞ്ഞ് തന്നെ തന്നെയായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും തുടങ്ങി അപ്പോഴ്ത്തേനും സ്വാഭാവികമായിട്ട് എല്ലാവരും കളിക്കാൻ തുടങ്ങി അതെല്ലാം കഴിഞ്ഞത്തേനും പേര് മേടിച്ചു നമ്പർ മേടിച്ചു അനിയൻറ്റെം മേടിച്ചു അദ്ദേഹത്തിനും വിളിച്ചേക്കാന്ന് പറ സെലക്ഷൻ കിട്ടുവാണേൽ വിളിച്ചേക്കാം ബാങ്കിലോട്ടുള്ള ഒരു പ്ലെയറിനെ എടുക്കുന്നുള്ളൂ അത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലോട്ടുള്ള ഒരു പ്ലെയറിനെയാന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഫോൺ വിളിച്ചു സെലക്ഷൻ കിട്ടി ഒരു ലീഗ് കളിക്കാൻ വേണ്ടിയാണ് ആയിരം രൂപയാണ് വേജ് കിട്ടുന്നതെന്ന് പറഞ്ഞു ഒരു കളിക്ക് അവിടുന്നും സെലക്ഷൻ കിട്ടണമെന്ന് പറഞ്ഞു നല്ല രീതിയിൽ സെലക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഐ ലീഗ് ഐ എസ് എൽ അങ്ങനുള്ള ലീഗ് സന്തോഷ് ട്രോഫി അങ്ങനൊക്കെ കിട്ടൂന്ന് പറഞ്ഞു നല്ല പ്രകടനമാണെങ്കിൽ അപ്പം പറഞ്ഞു ആ കളിക്കാൻ വരാൻ താല്പര്യോണ്ടൊന്നൊക്കെ പറഞ്ഞ് അപ്പത്തേക്കിനും പറഞ്ഞു ഫുഡും അക്കോമൊഡേഷൻ എല്ലാം അവിടെ തന്നെയാണ് അത് കഴിഞ്ഞ് അവിടെ ട്രെയിനിങ്ങ് സെലക്ഷന് ചെന്നപ്പോഴ്ത്തേക്കിനും കാലിന് ഇഞ്ചുറി പറ്റി ഇഞ്ചുറി പറ്റീട്ട് തിരിച്ച് വന്നപ്പോഴ്ത്തേക്കിനും ആണ് പിന്നെ ഇവിടെ എന്തിന് ഫോട്ടോഗ്രാഫി ചെയ്യാൻ തുടങ്ങീത് ഫോട്ടോഗ്രാഫി ഞാൻ തുടങ്ങിയതിനും അനിയൻ്റെ കൂടെ ആയിരുന്നു ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വർക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എന്നിട്ട് പല സ്ഥലങ്ങൾ കാണാൻ വേണ്ടീട്ട് സാധിച്ചു പല സംസ്കാരങ്ങൾ കാണാൻ സാധിച്ചു പല രീതിയിൽ പല മോഡൽസിനെ പല വെഡിങ്ങിന് പോവുന്നേൻ്റെ അനുഭവങ്ങൾ അങ്ങനെ കുറെ അനുഭവങ്ങൾ കയ്യിൽ കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് യു എയിൽ ഒരെണ്ണം വരുന്നുണ്ട് ചിലപ്പം അവിടെ ഞങ്ങളെ പൊ കൊണ്ടോവൂന്നാണ് പറഞ്ഞത് വർക്കിന് അത് കഴിഞ്ഞ് ബാംഗ്ലൂർ അങ്ങനുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ടെക്കെ കുറെ കിട്ടീട്ടുണ്ട് ഷൂട്ടിംഗ് അത് കൂടാതെ പിന്നെ ഇപ്പം സ്വന്തമായിട്ട് ഞങ്ങൾ ഒരെണ്ണം ഇടാൻ വേണ്ടിയൊക്കെ തുടങ്ങുന്നു പിന്നെ കുറെ ആൾക്കാരെ കാണാൻ പറ്റി കുറെ നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾ കിട്ടാൻ തുടങ്ങി ഫുട്ബോള് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞേ പിന്നെ കുറെ ടീമുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞേ പിന്നെ പൈസ കൊടുത്തന്നെ പ്ലെയേഴ്സിനെ വിളിക്കുന്നത് പോലെ നമ്മളെ വിളിക്കുന്നുണ്ട് കളിക്കാൻ വരാവോന്നൊക്കെ ചോദിച്ച് അങ്ങനെ നാട്ടുകാരൊക്കെ കുറച്ച് പേർ അറിഞ്ഞായിരുന്നു അപ്പം നല്ലതാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഉള്ള കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുത്തു കണ്ണൂർ വരെയൊക്കെ പോവാനൊക്കെ സാധിച്ചു അങ്ങനെ കുറെ ട്രോഫികളും കാര്യങ്ങളും കിട്ടി അങ്ങനെ ഈ ഒരു വർഷം ഭയങ്കരമായിട്ട് അവിസ്മരണീയമായിട്ട് തോന്നിയ ഒരു വർഷം